ആ തുളസീനെ വേണ്ട പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ നല്ല തുളസി ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ ഇത് കാലത്തു തന്നെ ഉണ്ടായിരുന്നു തുളസി തുളസി വെള്ള തുളസിയുണ്ട് കറുപ്പ് തുളസിയുണ്ട് പിന്നെ ഒരു ബല്യ ഇലയുള്ള തുളസി അതു നല്ല സ്മെല്ലുള്ള തുളസി തുളസി പൂ അതല്ലേ തുളസിയിലെ ഞങ്ങളുടെ വീട്ടിനു മുന്നിൽ നിന്ന് കിട്ടി അത് പൂജ ചെയ്യു പൂജ ചെയ്തിട്ട് അതിനു വേണ്ട കൊല്ലവും കൊല്ലവും തുളസി പൂജക്ക് അതിനെ ഇത് കെട്ടിയിട്ട് തുളസി പൂജക്ക് പന്തലെല്ലാം ഇട്ടിട്ട് നല്ല പൂജയെല്ലാം ചെയ്തിട്ട് നല്ല ഇതാക്കും പടക്കം എല്ലാം പൊട്ടിച്ചിട്ട് തുളസീനെ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനു ചുറ്റും ഫുള്ള് നല്ല ഇതാക്കിയിട്ട് ചെയ്യും പിന്നെ തുളസിനെ കുറിച്ചിട്ട് നല്ല ഗുണം ഉണ്ട് ചില സമയത്ത് അതിന് വെള്ളത്തിൽ ഇട്ടിട്ട് കുടിച്ചാൽ നല്ല ഇത് നല്ല ആരോഗ്യത്തിന് നല്ല ഇത് വരും പിന്നെ അതല്ലാതെ തുളസീനെ അതിന്റെ കുത്തിയിട്ട് അതിനെ കുത്തിയിട്ട് അതിനെ വെള്ളം എടുത്തിട്ട് മൂക്കിലേക്ക് ഊറ്റിച്ചാൽ മൂക്കിലേക്ക് ഊറ്റിച്ചാൽ ഈ മൂക്കിലുള്ള ബ്ലോക്കെല്ലാം മാറിക്കിട്ടും അതിനുള്ള നല്ല ഇതുണ്ട് തുളസിനെ കൊണ്ട് തുളസി മൂക്കിൽ നിന്ന് അതിന് ഡ്രോപ്പ്സ് ഇങ്ങനെ ഊറ്റിച്ചൽ മതി ആ മുക്കിലെ ഉണ്ട് ഏടേ ബ്ലോക്കുണ്ട് അതിങ്ങനെ കലങ്ങി പോകും ആ സംഭവം തുളസിന്റെ തലയോള തലയുടെ ഉള്ളിലോളേ കയറിയിട്ട് അത് മൂക്കിന്റെ ബ്ലോക്കിനെയെല്ലാം ഇറങ്ങും പിന്നെ തുളസി എന്നു പറഞ്ഞാൽ ഞാൻ തുളസി ഞങ്ങൾക്ക് ഭയങ്കര ആടെ വീട്ടിൽ ഞാനവിടെ എത്രയും തയ്യുണ്ട് എന്റെ വീട്ടിൽ തൊള എത്രയോ ആൾക്ക് ഞാൻ ഈ തുളസി തൈ കൊണ്ടു പോയിട്ട് കൊടുക്കും തുളസി നെ വേണ്ടിയിട്ട് നല്ല തുളസി കറുപ്പ് തുളസി കറുപ്പ് തുളസി എന്നാൽ നല്ല തുളസി ആണ് വെള്ള തുളസി പിന്നെ ഒരു തുളസിയുണ്ട് ആ മല്യ വലിയ വട്ടമായി ഇലയിലുള്ള തുളസി അത് നല്ല നല്ല ഭംഗിയുള്ള ഇലയാണ് നല്ല മാ സ്മെല്ലാണ് നല്ല ഇതായിട്ടുള്ളൊരു തുളസി കൊണ്ടു പിന്നെ ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് അതിന്റെ അതിനെ മരുന്നിന് ഉപയോഗിക്കും ഇപ്പോൾ ചുമ കഫം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇപ്പം അതിനെ കുത്തിയിട്ട് തുളസീന്റെ ഇതെല്ലാം ചപ്പല അതിനെ കുത്തിയിട്ടിട്ട് അതിനു കഷായം ഉണ്ടാക്കും കഷായം ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊക്കെ കൊടുക്കും കൊടുത്താൽ ഈ തൊണ്ട ബ്ലോക്ക് ചുമ ജലദോഷം ഉണ്ടേല് എല്ലാം പോകും തുളസിയിൽ തുളസിയിൽ കഷായത്തിന് വേണ്ടിയിട്ടുള്ള നല്ല സാധനമാണ് തുളസി തുളസി എന്നു പറഞ്ഞാൽ ഇപ്പോൾ എന്റെ ഓഫീസിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് തുളസി എന്നു പറഞ്ഞാൽ പോയേക്കുന്നത് തുളസി ആയിരിക്കും എന്നു പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും ഇപ്പോൾ ഞാനെന്റെ ഓഫീസിൽ കൊണ്ടെന്നിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ട് തുളസി എന്നു പറഞ്ഞാൽ തുളസിക്ക് ഞാൻ എപ്പോഴും വെള്ളം ഒഴിക്കും തുളസി ചെടി നടും വെള്ളം ഒഴിക്കും രാവിലെ രാവിലെ പോയിട്ട് വൈകുന്നേരം രാവിലെ പോയിട്ട് തുളസി തൈയ്യിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കും ഇത് എന്റെ വീട്ടിൽ ഇപ്പോൾ ഓഫീസിൽ എന്റെ ഓഫീസിൽ തുളസി ചെടികൾ ഉണ്ട് പണ്ടത്തെ കുറേ വലുതായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വലുതായി ആയിട്ടുണ്ട് തുളസി കാണാൻ നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ തുളസികൾ ഇപ്പോൾ വലുതായപ്പോൾ തന്നെ പുവിടുമ്പോൾ അതിനെ അതിന്റെ തൊട്ട് ഇത് അതിന്റെ തിരി പൂവിനെ മാറ്റിക്കളയണം മാറ്റിക്കളഞ്ഞാൽ അതു നല്ല ഇതായിരിക്കും എന്താന്നു പറഞ്ഞാൽ നല്ല ഇന്നും ബല്യ ബല്യ ഇതു ശരിയാകും എന്ന് ഓർത്തോളീൻ എന്നെ പൊയ്ക്കോ ഉണ്ടാകും അത്രയേ ഉള്ളൂ